പത്തനംതിട്ടയിലെ കെ എസ് ഇ ബി പോർട്ടലിലേക്കാണ് ഞാന് ഞാനിപ്പം പത്തനംതിട്ടയിൽ നിന്നാണ് വിളിക്കുന്നത് ഞാന് എൻ്റെ ഇവിടുന്നുള്ള സ്ഥലം മാറി വേറൊരു റൂട്ടില് വേറൊരു എലെക്ട്രിസിറ്റിയിലോട്ട് മാറുകയാണ് അപ്പം എൻ്റെ ഈ കറണ്ട് ബില്ലിൻ്റെ ഒരു ഇത് എനിക്ക് അയച്ചു വേണമായിരുന്നു രണ്ടു വർഷത്തെ വൈദുതി ബില്ലിൻ്റെ ഒരു പകർപ്പ് എനിക്ക് വേണമായിരുന്നു അപ്പോൾ അതെൻ്റെ മെയിലിലേക്ക് ഒന്ന് അയച്ചുതരാൻ സാധിക്കുമല്ലോ അത് എനിക്ക് പുതിയ വിലാസത്തിലേക്ക് മെയിൽ ചെയ്യണേ ഞാനിതുവരെ മെയില് മെയിൽ ഐ ഡി ഇട്ടുതരുന്നതായിരിക്കും അപ്പോൾ ഒന്ന് മെയില് ഇട്ടു തരണേ എൻ്റെ പഴയ ബില്ല് രണ്ടുവർഷത്തെ ഉള്ള ബില്ലും കാര്യങ്ങളൊക്കെ പുതിയ കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ദയവായി എനിക്കയച്ചു ചെയ്തു തരണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു